ആ ഡിഗ്രി ഉള്ളവരെ ഒരുപാട് പേരെ അറിയാം ചുറ്റുമുള്ളവർ കുറേപേർ ഡിഗ്രി എടുത്തവരാണ് അവർ സ്വയം മുന്നേറിയോയെന്ന് ചോദിച്ചാൽ ഡിഗ്രി അവർക്ക് ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പ്രാധകം പ്രാഥമികമായുള്ള ഒരു കോഴ്സ് മാത്രമാണ് ഡിഗ്രി അപ്പോൾ അവർക്ക് അതിൽ നിന്ന് താല്പര്യം ഉള്ള മേഖലകളിൽ മേഖലകളിലോട്ട് പോകാനുള്ള ഒരു അവസരമാണ് പിന്നീട് ആരും അവർ എടുക്കുന്ന ആ ഒരു ഡിഗ്രിയിൽ അവർ കൂടുതൽ പ്രാവീണ്യം അല്ലെങ്കിൽ കൂടുതൽ താല്പര്യം തോന്നുകയാണെങ്കിൽ അവർക്ക് പിന്നീടുള്ള മാസ്റ്റേഴ്സ് മറ്റ് കാര്യ പി ജിയിലോട്ട് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ് ആ അങ്ങനെ ഡിഗ്രി ഉള്ള ഒത്തിരി ആൾക്കാർക്ക് അറിയാം ആൾക്കാരെ അറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഡിഗ്രി എന്നു പറയുമ്പോൾ ഒരു ബേസിക് എജുക്കേഷൻ മാത്രമാണ് പ്രാഥമികം പ്രാഥമികമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം മാത്രമാണ് അങ്ങനെ ഡിഗ്രി കോളിഫിക്കേഷൻസ് വച്ച് ഒരുപാട് മുന്നേറിയ ഒരുപാട് ആൾക്കാരുമുണ്ട്